വീഡിയോ ഗെയിമുകളെ കുറിച്ച് അറിയാമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഗെയിമിങ്ങിനെ കുറിച്ച് വലിയൊരു പിടുത്തം ഒന്നുമില്ല പിന്നെ ഞാൻ കളിച്ചിട്ടുള്ള വീഡിയോ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണ്ട് കമ്പ്യൂട്ടറിൽ ഗുസ്തിയാണ് അതായത് രണ്ടുപേർ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് കീ ബോർഡിലെ ആരോ മാർക്കിൽ ഞെക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാനൊക്കെ പറ്റും അതാണ് കളിച്ചിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് വെച്ചാൽ പബ് ജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കളിച്ചിട്ടൊന്നുമില്ല പബ് ജി വെടിവെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കളിച്ചിട്ടില്ല എനിക്ക് പിന്നെ ഗെയിം വീഡിയോ ഗെയിമിനോട് വലിയ താത്പര്യം ഒന്നുമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പണ്ട് പണ്ടൊക്കെ മറ്റേ ചെറിയ ടച്ച് ഫോണിലെ അല്ല ചെറിയ ഫോണിൽ കട്ടപെട്ടി ഫോണിൽ സ്നേക്ക് കളിക്കുമായിരുന്നു എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് സ്നേക്ക് ഗെയിം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ എന്ത് വെച്ചാൽ കാർ റേസിംഗ് ബൈക്ക് റേസിംഗ് അങ്ങനത്തതൊക്കെയുണ്ട് അതായത് ലാപ്പിലെ അതായത് ലാപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഗെയിമിനോട് ഒന്നും വലിയ താത്പര്യമൊന്നുമില്ല പണ്ട് തൊട്ടേ ഗെയിമുകളികൾക്കൊന്നും എനിക്ക് വലിയ താത്പര്യം ഒന്നുമില്ല എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതിനോടൊന്നും